ഹല്ലോ എന്റെ പേര് അൻല ഉണ്ണികൃഷ്ണന് ഞാന് ഇന്നലെ യൂബെര് വഴി ഒരു കാര് ബുക്ക് ചെയിതിരുന്നു അങ്കമാലിയില് നിന്നും കൊച്ചി വരെ പോവാനായിരുന്നു കാര് ഞാന് ബുക്ക് ചെയ്തത് എന്റെ യൂബർ ഐഡി സീറോ വൺ നയന് ഫൈ ത്രീ ടൂ സിക്സ് ആയിരുന്നു എന്റെ യാത്രാവിവരങ്ങളെല്ലാം ഐ ഡി സെര്ച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു പ്രത്യേക കാര്യങ്ങളാല് എനിക്ക് ഇന്നലെ യാത്ര നടത്താന് സാധിച്ചില്ല ഞാന് യാത്രയ്ക്ക് റെഡിയാവുന്ന സമയത്ത് സ്റ്റെയറില് നിന്നും വീട്ടിലെ സ്റ്റെയറില് നിന്നും താഴത്തേക്ക് വീണ് കാല് ചെറുതായിട്ട് ഫ്രാക്ച്ചറായി അതു കാരണമാണ് എനിക്ക് ഞാന് ചെയ്ത ട്രിപ്പ് ക്യാന്സൽ ആക്കേണ്ടി വന്നത് പക്ഷെ ട്രിപ്പിന് വേണ്ടി ഞാൻ ഒരു അഞ്ഞൂറ് രൂപ അഡ്വാന്സ് പേയ്മെൻ്റ് ചെയിതിരുന്നു ആ പേയ്മെൻ്റ് എനിക്ക് തിരികെ കിട്ടിയാൽ നന്നായിരുന്നു ഇന്നലെ അത്രയും എമര്ജന്സി വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് യാത്ര പോവാതിരുന്നത് ഓള്റെഡി ചെയ്ത അഡ്വാന്സ് ആയിട്ടുള്ള പേമെൻ്റ് എന്റെ വാലറ്റ് വഴിയോ അല്ലെങ്കില് ഓണ്ലൈന് പേയ്മെൻ്റ് മാര്ഗമായ ഗൂഗിള് പേ വഴിയോ അയച്ചു തന്നാല് വളരെ നന്നായിരിക്കുന്നതാണ്